പണ്ട് കാലത്തുള്ള കർഷകരെ സംബന്ധിച്ചുള്ള അവർക്ക് എല്ലാ പണികളും ഏത് ഏത് ജോലിയാണേലും കണ്ടത്തിലാണേലും പറമ്പിലാണേലും ഏത് പണിക്ക് വിളിച്ചാലും അവർക്ക് അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മളവിടെയായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല അവരതുപോലെ നല്ല രീതിയിൽ പറയോ എടുക്കുവോ എല്ലാം എല്ലാം ചെയ്യുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് എത്രയാന്ന് പറഞ്ഞാലിപ്പം അവരെ വിളിച്ച് കഴിഞ്ഞാലവർ ഇന്ന് വരാം നാളെ വരാം നാളെ കഴിഞ്ഞ് വരാം അല്ലെങ്കിൽ രണ്ട് പേര് പണിയണ്ട എടുത്ത് അവർ ഒരഞ്ച് പേരേം കൂടെ വിളിച്ചാലേ ഞങ്ങൾ വരത്തൊള്ളുന്നൊക്കെ പറഞ്ഞ് നിന്ന് നിന്ന് ഇപ്പം അത്യാവശ്യം എല്ലാ പണിസ്ഥലത്തും ഇപ്പം ബംഗാളികൾ അതുപോലുള്ള ആൾക്കാരും കയറിയിരിക്കുക ഈ പഴയ പണിക്കാരെ നമ്മൾ അവർക്ക് നമ്മളിപ്പം അഞ്ഞൂറ് രൂപ കൊടുത്തോണ്ടിരുന്നെടത്ത് ഇന്ന് അഞ്ഞൂറ് കൊടുത്ത് കഴിഞ്ഞാൽ നാളെ അവർക്ക് പണിയാൻ വരണോ എന്നാ നൂറ് കൂടി കൂട്ടി തരാം അറുന്നൂറ് തരാം എന്ന് പറഞ്ഞാലവർ വരും രണ്ട് ദിവസത്തേന് വന്ന് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം വരത്തില്ല പിന്നെ നാലാമത്തെ ദിവസം പിന്നേം നൂറ് രൂപ കൂട്ടി കൊടുക്കാം വന്നാൽ തരാം ഞങ്ങൾ തരാം വാ എന്ന് പറഞ്ഞാലവർ വരുന്നുള്ളു അല്ലാതെ അവർക്ക് വരണന്ന് വലിയ താൽപ്പര്യമോന്നുല്ല കാരണം മറ്റേത് എട്ട് മണിയാവും പണിയും കയറി കഴിഞ്ഞാൽ അഞ്ച് മണിവരെ നല്ല സുഖമായിട്ട് പണിതോണ്ടിരുന്ന ആൾക്കാരിപ്പം ഒൻപത് മണിയാകുമ്പഴ്ത്തേന് വരും മൂന്ന് മണിയാകുമ്പഴ്ത്തേന് കയറി പോകും അങ്ങനെയാണ് നമുക്കായിട്ട് കുടുംബത്തിലൊക്കെ ഒരു സ്ഥിരമായിട്ട് ഒരു പണിക്കാരനക്കെ നിക്കുന്നുണ്ടെങ്കിലിന്നിപ്പം ആ പണിക്കാരന് അവൻ്റെ അടിസ്ഥാന ശമ്പളം പോലെയാണ് ആയിരം രൂപ രാവിലെ എടുത്ത് വന്ന് കയറുമ്പഴേ വൈകുന്നേരം അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കാങ്കി നിന്ന് പണിതോളും അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത്